മണ്ണെണ്ണ മണ്ണെണ്ണ കുറച്ചേ ഉള്ളു മണ്ണെണ്ണ ലിറ്ററിന് എൺപത് രൂപയാണ് ആ പിന്നെ വേറെ എന്ത് വേണം വേറെ എന്ത് വേണം ആ ആ ആ ഓ മേടിക്കണം എന്നോ എടാ വേറെ ഗോതമ്പ് മാവുണ്ട് ചാക്ക് അരി ഒന്ന് പച്ചരിയൊന്ന് ഗോതമ്പ് മാവ് ഫ്രീയാണ് ഗോതമ്പ് നിങ്ങള് മഞ്ഞ കാർഡല്ലെ നിങ്ങൾക്ക് ഫ്രീയാണ് ആ ചെമ്പാവരി ഒന്ന് ഡാ ചെമ്പാവരി ഒന്ന് ആ പിന്നേ പിന്നേ മണ്ണെണ്ണ തീരുന്നതിന് മുമ്പെ പെട്ടെന്ന് വന്നാൽ തരാമെന്ന് പറയണെ വാപ്പയുടെ അടുത്ത് ആ അല്ലേൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് വാപ്പ ഇവിടെ വന്ന് കിടന്ന് കിടക്കേണ്ടി വരും എന്തൊ റോസരി ആ റോസരിയൊ റോസരി അത് വില കൂടുതൽ ആണ് എടാ ആ മുപ്പത്തിയേഴ് രൂപയാണ് മുപ്പത്തിയേഴ് രൂപയാണ് ഒരു കിലോ നീ ഇന്ന് പറ്റുവെങ്കിൽ വാ ഇന്ന് ഒര് രണ്ട് മണി ഒക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ച് രണ്ട് മണിയാകുമ്പോൾ വാ രണ്ട് മണി കഴിയുമ്പോൾ വാ ആ ഓക്കെ ഓക്കെ

വേറെ പിന്നെ വേറെ ഇത്രയും ഉള്ളു പിന്നെ മണ്ണെണ്ണ തീരുന്നതിന് മുമ്പെ പെട്ടെന്ന് വരാൻ പറയണെ മണ്ണെണ്ണ കുറവാണ് വില കൂടുതലുമാണ് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ബാപ്പ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കിയ കണക്ക് വീണ്ടും ബഹളം ഉണ്ടാക്കേണ്ടി വരും മണ്ണെണ്ണ കുറച്ചേ ഉള്ളു വില കൂടുതലുവാണ് എൺപത് രൂപയാണിപ്പം ആ ഇപ്പം ഒരു സ്റ്റാഫ് ഉണ്ട് ആ നിൻ്റെ പണ്ടത്തെ കൂട്ടുകാരൻ എന്താ ഒരു റാഷിദ് ആ പിന്നെ നീ ഇപ്പം എത്രയില് പ്ലസ് ടു ആണൊ ആ ഇവിടെ തന്നെ പഞ്ചസാരക്ക് മുപ്പത്തഞ്ച് രൂപയാട മുപ്പത്തി അഞ്ച് രൂപ അല്ല പഞ്ചസാരക്ക് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ ആ അതെ അതെ ഉഴുന്ന് മുപ്പത്തി നാല് രൂപ ആ ഓക്കെ ആ ഓക്കെ ബാപ്പ ആ ബാപ്പ ആ വിളിക്കാം നമ്പർ ഉണ്ട് എന്റെ കയ്യിൽ ബാപ്പയെ വിളിക്കാം ആ ആ ആ സാധനമെടുത്ത് വെച്ചേക്കണൊ സാധനം എടുത്ത് വെച്ചേക്കണൊ വെച്ചേക്കട്ടെ കിറ്റാ എടാ മോനെ കിറ്റ് ഇപ്പം വരക്കയില്ല കിറ്റ് എന്ന് പറയുമ്പം ഓണത്തിന് ക്രിസ്മസിന് അങ്ങനെ ഒക്കെ ഉള്ള വിശേഷം എന്തെങ്കിലും വരുമ്പഴേ കിറ്റ് വരവുള്ളൂ ഓണക്കിറ്റ് ഓ ഓക്കെ അതിന് മുമ്പ് നീ വരുവല്ലൊ കടയിലേക്ക് ആ പിന്നെ എല്ലാവർക്കും സുഖമാണല്ലൊ ഓക്കെ അപ്പം എല്ലാവരേയും തിരക്കി എന്ന് മണ്ണെണ്ണ മണ്ണെണ്ണ ഓക്കെ ആ വെളിച്ചെണ്ണ ഉണ്ട് ഓ വെളിച്ചെണ്ണ തുച്ഛമായ വില മുപ്പത്തി നാല് മുപ്പത്തി നാല് അത് മുപ്പത്തി നാല് തന്നെ ഓക്കെ ഓക്കെ എടുത്ത് വെച്ചേക്കാം ആ ഓക്കെ ഓക്കെ ആ പിന്നെ നിങ്ങള് റേഷൻ റേഷൻ കാഡിൻറ്റൊര് ഫോട്ടോയും കൂടെ എടുത്ത് അയച്ച് തരണേ